അതെ ആ അതേല്ലോ സാറേ വിളിച്ചത് എന്തായിരുന്നു എന്ത് ഫങ്ഷനായിരുന്നു എന്ത് നമ്മൾ എങ്ങനെയാണ് രാവിലത്തെതാണോ വൈകിട്ടത്തെയാണോ ഉച്ചക്കത്തെ ഭക്ഷണത്തിന്റെ ആണോ ക്രമീകരണം രാവിലത്തെതാണോ വൈകിട്ടത്തെതാണോ ഉച്ചക്കത്തെയാണോ ഭക്ഷണം ക്രമീകരിക്കേണ്ടത് നമ്മളെ സാറേ നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവിലത്തെ കാപ്പിയാണോ വൈകിട്ടത്തെ കാപ്പിയാണോ അതോ ഉച്ചക്കത്തെ ഭക്ഷണം എങ്ങനെയാണ് രാവിലെ നമ്മൾ എന്നാ ചെയ്യുക രാവിലെ നമ്മൾ എന്താണ് ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്

അപ്പം എത്രയാണ് നമ്മൾ എത്രയാണ് ആൾക്കാർ വരുന്നത് അൻപത് പേര് അത് അപ്പം നമ്മൾ ശരാശരി എത്ര പൊറോട്ട വേണ്ടി വരും എന്നാൽ ഈരണ്ട് വെച്ചോ മുമ്മൂന്ന് വെച്ചോ എങ്ങനെയാണ് ഓഡർ ചെയ്യേണ്ടത് ഈരണ്ട് വെച്ച് മതി ആ ഓക്കെ അൻപത് പേര് കോഫി മട്ടൻ നമ്മൾ ഈ

എല്ലാം കൂടിക്കൂട്ടി അൻപത് പേർക്കുള്ള എത്ര മണിയാകുമ്പോൾ എത്തിക്കാൻ എത്ര മണിയാകുമ്പോഴ്ത്തേക്ക് എത്തിക്കേണ്ടത് പത്ത് മണി ഞങ്ങൾ ഒരു ഒൻപത് മുക്കാൽ ആകുമ്പോഴ്ത്തേക്കും അവിടെ എത്തിക്കാം ഹ് ആ അത് കുഴപ്പമില്ല ആ നമ്മൾ ആ ഉദ്ദേശിച്ച സ്ഥലം ലൊക്കേഷനും കൂടൊന്ന് പറഞ്ഞേക്കാമോ വണ്ടിപ്പാല നമ്മുടെ സെൻജോസഫ് ദേവാലയമല്ലേ അറിയാമോ പള്ളിയിൽ വെച്ച് തന്നെ അതിപ്പം നമ്മൾ സാറെങ്ങനെയാണ് ഗൂഗിൾ പ്പേ ചെയ്യുവാണോ അതെയോ നേരിട്ട് വന്ന് പേയ്മെൻറ്റ് നടത്തുകയാണോ അപ്പം സാറേമ്മ് നമുക്ക് പറഞ്ഞേക്കുന്ന അൻപത് പേരുടെ ഭക്ഷണവും ഒരു അത്യാവശ്യം ഒരു അത്രേം പണിപറയാൻ നമ്മൾ തോപ്രാങ്കുടിയായോണ്ട് നമുക്ക് ശകലം പൈസ അഡ്വാൻസ്സ് പേ ചെയ്തേക്കാമോ മ്മ് ഇപ്പം ഏതാണ്ട് ഒരു അൻപത് പേർക്ക് ആകുമ്പോഴത്തേക്കൊരു ആ സാറൊരു രണ്ടായിരം രൂപ ഇപ്പം ഇടുക ബാക്കി ടോട്ടല് ടോട്ടൽമായി ഞാൻ അങ്ങോട്ട് ഐറ്റം തിരിച്ച് ഞാൻ അങ്ങോട്ടിട്ടേക്കാം നമ്മുടെ വാട്സപ്പിലേക്ക് സെന്റ് ചെയ്തോളാം ആ ഇനിയുണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടിയുണ്ടല്ലോ അപ്പം ഞാൻ സെന്റ് ചെയ്ത് തരുന്നത് സാർന് താൽപ്പര്യമുണ്ടെങ്കിൽ അത് വേറെ നോക്കുന്നുമില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് തന്നെ തുടർന്ന് പോകാമല്ലോ നമ്മുടെ റേയ്റ്റുമെല്ലാം കൂടി ഇട്ടേക്കാം റെയ്റ്റുമെല്ലാം കൂടെ കൂട്ടി ടോട്ടൽ ചെയ്തങ്ങോട്ട് ചാർജ് ഷീറ്റങ്ങോട്ട് ഇട്ടേക്കാം അപ്പം അപ്പം ഇന്ന് ഇന്ന് പന്ത്രണ്ടാം തീയതിയല്ലേ ആ ആയിക്കോട്ടെ പതിനേഴ് പതിനാറാം തീയതി ആകുമ്പോഴത്തേക്കും സാധനം എത്തിച്ചേക്കാം സാറെന്നേ ഒന്നൂടെ ഒന്ന് കോണ്ടാ ഇടക്ക് ഒന്നും കൂടി കോണ്ടാക്റ്റ് ചെയ്തോണം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ആ പതിനേഴ് ഓക്കെ ആയിക്കോട്ടെ യാതൊരു കുഴപ്പങ്ങളുമില്ല ഫ്രെഷായിടാം പിന്നെ വേറെ ഐറ്റവൊന്നും വേണ്ടല്ലോ ഈ മൂന്നയ് നാലയ്റ്റം പോരെ ചായയും ആ ബീഫും ആ മട്ടൻ ബിരിയാണി മട്ടണല്ലേ അൻപത് പേര് അതന്നെ ഓക്കെ ഇനി എന്തേലും സംശയം ഞാൻ സാർനേ വിളിച്ചോളാം ഇടക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാം രണ്ട് മൂന്ന് ദിവസം കൂടിയുണ്ടല്ലോ പിന്നേ വേറേ വേറെവല്ല ഫങ്ഷന് വല്ല ഓഡറും അങ്ങനെ വല്ലതും സ്വീകരിക്കുന്നുണ്ടോ ആ എന്നാൽ അത് കുഴപ്പമൊന്നുമില്ല ഏതായാലും നമ്മൾ ആത്മാർത്ഥയോടെ ഭംഗി ആയിട്ട്തന്നെ ചെയ്തോളാം നമുക്ക് ഇന്ന് നിലവിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ അത്യാവശ്യം ആ ആയിക്കോട്ടെ കുഴപ്പമില്ല കുഴപ്പമില്ല നമ്മൾ ആ ഒരു കുഴപ്പമില്ല നമ്മൾ ശരിയായി സംഭവം റെഡിയാക്കിക്കോളാം അതിന് യാതൊരു കുഴപ്പമില്ല നമ്മൾ അതെല്ലാം ഏറ്റിട്ടുള്ളതാണ് അപ്പം അടുത്ത ദിവസം പതിനേഴാം തീയതി ആകുമ്പോഴത്തേക്കും വിളിക്കാം ഓക്കെ താങ്ക് യൂ